വാർത്തയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും യാഥാർഥ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പല പല വ്യാജവാർത്തകളും നമ്മുടെ ന്യൂസുകളിൽ കാണിക്കാറുണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികളുടെ കാര്യങ്ങളുടെ ഉള്ള പല പല വ്യാജവാർത്തകളും വരുമ്പോൾ കുട്ടികളിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് അവരെ നമ്മൾ കുറച്ചും കൂടി പുറത്തേക്ക് വിടാനുള്ള മടി മാതാപിതാക്കളായിട്ടുള്ളവർക്ക് പുറത്തേക്ക് കുട്ടികളെ ഫ്രീയായിട്ട് വിടാനൊള്ള ഒരു മടി നമ്മുടെ മനസ്സിലും വരും അപ്പം അത് പേടിച്ചിട്ടാണ് കുട്ടികളെ പുറത്തേക്ക് പോലും വിടുന്നത് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അത് കൂടാണ്ട് പിന്നെ കുട്ടികളേക്കുറിച്ചിട്ടുള്ളതാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സെക്ക്യുവറായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുള്ളു പിന്നെ പല കുട്ടികളേക്കുറിച്ചിട്ട് മാത്രമല്ല പല തരത്തിലുള്ള വ്യാജ വാർത്തകളും ഇറങ്ങുന്നുണ്ട് പക്ഷേ യാഥാർഥ്യമാണോയെന്ന് ചോദിച്ചാൽ യാഥാർഥ്യത്തിൽ കുറച്ച് കുറച്ചും കൂടി വാർത്തകളിൽ പൊലിപ്പിച്ച് കാര്യങ്ങൾ നടത്തുകയും പിന്നെ അതു നമ്മൾ വിശ്വസിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളവർ വീഡ്യോസിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ യാഥാർഥ്യമാണെന്ന് വിശ്വസിച്ച് പോവുകയും ചെയ്യാറുണ്ട് ആ പക്ഷേ എത്രത്തോളം ഈ വാർത്തകൾ യാഥാർഥ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല